വന്യമൃഗങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ആ പിന്നെ ചില മൃഗങ്ങളിൽ അതായത് മുയൽ ഒക്കെ ആകുമ്പം പ്രസവിച്ച് കഴിയുമ്പം അമ്മ മുയൽ കുഞ്ഞുങ്ങളെ കടിച്ച് തിന്നാറുണ്ട് അത് പക്ഷേ അതേ സമയം പൂച്ചകളൊക്കെയാകുമ്പം പ്രസവിച്ച് കഴിയുമ്പം അതുങ്ങളെ ശരിക്ക് സംരക്ഷിക്കാറുണ്ട് കാര്യം അമ്മ ചെവിക്ക് പിടിച്ചോണ്ട് പോവുകയും പാൽ കൊടുക്കയൊക്കെ ചെയ്യാറുണ്ട് നല്ല പട്ടിക്കുഞ്ഞും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല ഇപ്പം നമ്മൾ അപ്പം അവർ പ്രസവിച്ച് പ്രസവിച്ചിട്ടാലും നമ്മൾ കൂടൊന്ന് അവരെ കെയറ് ചെയ്യേണ്ടതൊണ്ട് കാര്യം അതുങ്ങൾ സമയത്ത് ആ പിന്നെന്തെകിലും ചില വയ്യായികയൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പിള്ളേരെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമുക്കിപ്പം മൃഗസ ത്തിൻ്റെ ങ്ങൾ മൃഗങ്ങളാണെന്ന് പറഞ്ഞാലും ആ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ നമ്മൾ സംരക്ഷിച്ച് നോക്കണം എടുക്കണം പിന്നെ അത് കൂടാതെ തന്നെ മറ്റുള്ള വന്യ മ് വേറെയുള്ള മൃഗങ്ങൾ വന്ന് ഉപദ്രവിക്കാതെ നോക്കേണ്ടതാവശ്യവാണ് പിന്നെ പ്രത്യുത്പാദനം ശേഷി എന്ന്ച്ചാൽ ആ മുയലിൻ്റെയൊക്കെ ആവുമ്പത്തേന് ബ്ലഡ്ഡ് വരാറുണ്ട് അപ്പോൾ ബ്ലഡ്ഡ് കാണുമ്പോൾ നമുക്ക് മനസിലാക്കാം പ്രത്യുത്പാദനത്തിൻ്റെയാണെന്ന് പിന്നെ മൃ പട്ടികൾക്കുവൊക്കെ അങ്ങനെ വരാറുണ്ട് പിന്നെ നല്ല കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ള അത് ഇപ്പോൾ പട്ടികൾക്കാണെങ്കിൽ നല്ലയിനം പട്ടികളാണെങ്കിൽ നമ്മളവരെ നന്നായിട്ട് കെയർ ചെയ്യണം വേറെ അഴുക്ക് അഴുക്ക് അഴുക്ക് സ നാടൻ പട്ടികൾ അതിനകത്ത് വന്ന് ക്രോസ്സ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ അതിന് നമ്മളിങ്ങനെ ബ്ലഡ്ഡ് കണ്ട് കഴിയുമ്പം പിന്നെ എന്നും പട്ടികളെ തന്നെ തന്നെ കൂട്ടിനാ ആണും പെണ്ണിനെയും നമ്മൾ കൂട്ടിനകത്ത് ഇടാറുണ്ട് ക്രോസ് ചെയ്യിക്കാറുണ്ട് ആ പിന്നെ അപ്പോൾ അത് ആതിനേം തന്നെ നമുക്ക് ലഭിക്കാറുണ്ട് പിന്നെ അവർ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴ്ത്തേനും നമ്മൾ സംരക്ഷിക്കണം അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ കൊടുക്കണം